മലയാളികൾ അവരുടെ സാംസ്കാരിക പാരമ്പര്യങ്ങളെ ആഘോഷിക്കാനും ആദരിക്കാനും അവരുടെ ഭാഷ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രാദേശിക ഭാഷ മലയാളം തന്നെ ആയതുകൊണ്ട് നമ്മുടെ ഗവൺമെന്റ് ഓഫീസുകളിൽ എല്ലാം മലയാള ഭാഷ നിർബന്ധമാക്കിയിരിക്കുകയാണ് അതുപോലെതന്നെ എല്ലാവരും തന്നെ മലയാളത്തിൽ സംസാരിക്കാനും മലയാളഭാഷയെ മലയാളഭാഷയെ ആദരിക്കണമെന്നും ഒക്കെ അവിടെ പറഞ്ഞു ഗവൺമെൻറ്റിൽ നിന്ന് തന്നെ നിർബന്ധം പിടിക്കാറുണ്ട് അതുപോലെതന്നെ സ്കൂളുകളിൽ ആണെങ്കിലും സി ബി എസ് ഇ സ്കൂളുകളിലാണെലും അല്ലാതെ ഉള്ള എയ്ഡഡ് സ്കൂളുകളിലും അൺ എയ്ഡഡ് സ്കൂളുകളിലും എല്ലാം തന്നെ മലയാളഭാഷ നിർബന്ധമായും പഠിക്കണമെന്ന് പറയാറുണ്ട് കാരണം നമ്മൾ നമ്മുടെ മാതൃഭാഷ മലയാളമായതിനാൽ നമുക്ക് മലയാളത്തെ പറ്റി ഒരു ജ്ഞാനം ശരിയായിട്ട് എഴുതാനും വായിക്കാനും അറിയുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് കാരണം അതിനെ ആരും വിലകുറച്ച് കാണാനോ ഇംഗ്ലീഷോ അങ്ങനെ ഉള്ള മറ്റു ഭാഷകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് കൊടുക്കുന്നതിൽ ഉപരിയായിട്ട് നമ്മുടെ മാതൃഭാഷയെ നമ്മൾ ശരിയായി മനസ്സിലാക്കുകയും അത് നമ്മുടെ ഇടയിൽ തന്നെ കൂടുതൽ അതിന് പ്രചാരം കൊടുക്കുകയും

അത് കൂടുതലും മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്ക് നമ്മൾ സംസാരിക്കുന്ന ആ കാര്യം ഹൃദയത്തിലേക്കിറങ്ങി ചെല്ലണമെങ്കിൽ നമ്മുടെ മാതൃഭാഷയിൽ തന്നെ സംസാരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് മാതൃഭാഷയെ പരിപോഷിപ്പിക്കുവാൻ വേണ്ടിയിട്ട് സ്കൂളുകളിലൊക്കെ കഥ കവിത മത്സരങ്ങൾ നടത്താറുണ്ട് നാടൻപാട്ട് മത്സരങ്ങൾ നടത്താറുണ്ട് അതിൽ കുട്ടികളൊക്കെ വളരെ താല്പര്യത്തോടെ തന്നെയാണ് പങ്കെടുക്കുന്നത് കണ്ടിട്ടുണ്ട് അതുപോലെ മലയാള ഭാ മലയാള ഭാഷ സ്കൂളുകളില് പഠിക്കുമ്പോൾ ഇപ്പം പൊതുവേ കാണപ്പെടുന്ന ഒരു രീതിയാണ് സി ബി എസ് ഇ സ്കൂളുകളിൽ പഠിക്കുന്ന മലയാളം പഠിക്കുന്ന കുട്ടികൾക്കും അക്ഷര തെറ്റ് വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് പക്ഷേ കുറെയെക്കെ ടീച്ചർമാർ അതിന് നിർബന്ധം പിടിക്കാറുണ്ട് അക്ഷരത്തെറ്റില്ലാതെ കുട്ടികൾ എഴുതണമെന്ന് പക്ഷേ പലപ്പോഴും അക്ഷര തെറ്റുകൾ പത്താം ക്ലാസ് വരെയും കാണാം കുട്ടികളെഴുത്ത് പഠിക്കിച്ചിട്ടും കുട്ടികൾക്ക് ഇടയിൽ അക്ഷരത്തെറ്റുകൾ കാണുന്നുണ്ട് എങ്കിലും നമ്മുടെ മലയാള ഭാഷയുടെ പ്രാധാന്യം ടീച്ചർമാരും മനസ്സിലാക്കി കൊടുക്കാറുണ്ട് കുട്ടികൾ കൂടുതലും നമുക്ക് ഭാഷയെ പറ്റി കൂടുതലായിട്ടും കുട്ടികളുടെ ഇടയിലാണെങ്കിലും മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ ഒരു നല്ല മാർഗം എന്ന് പറയുന്നത് വായനയാണ് ഇപ്പം പ്രത്യേകിച്ച് പത്രം വായിക്കുന്നതിലൂടെയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ടും പല കാര്യങ്ങളെ പറ്റിയുള്ള അറിവും കിട്ടും ഭാഷയാണേലും പലതരത്തിലുള്ള ഭാഷാ പ്രയോഗങ്ങളും രീതികളുവൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ നമുക്ക് ഭാഷയ്ക്ക് കൊടുക്കേണ്ട പ്രാധാന്യം നമ്മൾ കൊടുക്കുക കുട്ടികൾക്കിടയിൽ കൂടുതലും ഇംഗ്ലീഷ് ദിനപത്രങ്ങളുവൊക്കെ വരുത്തുന്നത് നല്ല കാര്യമാണ് എങ്കിലും മലയാളം കൂടെ വരുത്തി കൊടുക്കുക ആണേൽ ആയിരിക്കും അത് വായിക്കാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് നല്ലതാണ് വായന മത്സരങ്ങളൊക്കെ നമ്മുടെ ഇടയിൽ പലയിടങ്ങളിൽ നടത്താറുണ്ട് ലൈബ്രറി പോ ലൈബ്രറികള് ഒട്ടനവധി ഉണ്ട് നമ്മൾക്ക് ഇടയിൽ അവയൊക്കെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതും മലയാളഭാഷയെ നമുക്ക് മുന്നോട്ടുകൊണ്ടുപോകാനും അത് നമ്മുടെ സംസ്കാരിക പാരമ്പര്യം നിലനിർത്തി പോരുവാനുവൊക്കെ നല്ലതാണ് പല പല ആഘോഷങ്ങൾക്ക് ഇടയിൽ തന്നെയാണെങ്കിലും മലയാളം പാട്ടുകൾ നാടൻ പാട്ടുകൾ കവിതകൾ ഇവയൊക്കെ ഒരു കവിത ചൊല്ലുക കവിത എഴുതുക ഇങ്ങനെയുള്ള മത്സരങ്ങളൊക്കെ നടത്തുകയാണെന്ന് ഉണ്ടെങ്കിൽ കുട്ടികൾ കുറേക്കൂടെയാണെങ്കിലും അത് മുതിർന്നവരുടെ ഇടയിൽ ആണെങ്കിൽ ഇതൊക്കെ നടത്തണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്തുകൊണ്ടെന്നാൽ നമ്മുടെ മലയാളത്തിലെ പ സംസാരഭാഷയ്ക്കുപരിയായിട്ട് സാഹിത്യത്തെപ്പറ്റി കൂടുതലായിട്ട് ബ അറിയാനും ശ്രമിക്കും മറ്റ് സാഹിത്യം എഴുതാനാണെങ്കിലും അത് മ സംസാരിക്കുമ്പോൾ ആണെങ്കിലും കവിതയിലാണെങ്കിലും ആ സാഹിത്യം കൂടെ വരുത്തി എന്താ അത് മലയാളത്തിൽ നമ്മൾ അത് കവിതയോ കവിത കഥയോ ഒക്കെ ചെയ്യുമ്പോൾ വായിക്കുമ്പോഴും പറയുമ്പോഴും എഴുതുമ്പോഴും ഒക്കെ നമുക്ക് സാധാരണ സംസാരിക്കുന്ന ഭാഷയെക്കാൾ ഉപരി നമ്മൾ കൂടുതലായിട്ടും സാഹിത്യം കൂടെ നമുക്ക് മനസ്സിലാക്കുവാനും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാനും മറ്റുള്ളവർ ശ്രമിക്കുകയെങ്കിലും ചെയ്യും അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ടും നമ്മുടെ ഭാഷയെ വളർത്തിക്കൊണ്ടു വരുവാൻ നമ്മൾ അതിനെ ആദരിക്കാനും നമ്മൾ ശ്രമിക്കണമെന്ന് തന്നെയാണ് ഞാനും പറയുന്നത് എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഭാഷ എപ്പോഴും നമ്മുടെ മാതാവാണ് ആ ഭാഷ വിട്ട് നമുക്ക് അതിനു കൊടുക്കുന്ന പ്രാധാന്യം മറ്റുള്ള ഏത് ഭാഷയെക്കാലും നന്നായിട്ട് നമ്മൾ നമ്മുടെ മാതൃഭാഷയെ പ്രാധാന്യം കൊടുത്ത് നമ്മൾ ആദരിക്കണം എന്ന് തന്നെയാണ് എൻ്റെയും നിലപാട് ഞാൻ എൻ്റെ കുട്ടികൾക്കാണെങ്കിലും മലയാള പത്രം വായിക്കാനും മലയാളം പുസ്തകങ്ങൾ വായിക്കാനും പറഞ്ഞു കൊടുക്കുകയും കുട്ടികളെക്കൊണ്ട് മലയാളം പുസ്തകങ്ങൾ വായിപ്പിക്കുകയും ചെയ്യാറുണ്ട് അങ്ങനെ വായിക്കുന്നതിലൂടെ കൂടുതലും നമ്മുടെ മലയാളത്തെ പറ്റി മലയാളഭാഷയെ പറ്റി കൂടുതൽ കുട്ടികൾ അറിയാനും അത് മനസ്സിലാക്കുവാനും കുട്ടികൾക്ക് സാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് അതിനു പറ്റുന്ന പല അവസരങ്ങളും മലയാളഭാഷയെ ആദരിക്കാൻ ഉപയോഗിക്കുന്ന പല സ അവസരങ്ങളും നമ്മൾ ഒരിക്കലും അത് ഒഴിവാക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്